ഹലോ എൻ്റെ പേര് രഞ്ജിനി ലിജു ഇത് നിരഞ്ജൻ ഗ്യാസ് ഏജൻസി അല്ലേ ഞാൻ ഇന്നലെയാണെങ്കിൽ ഒരു ഗ്യാസിന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടാണ് ബുക്ക് ചെയ്തത് ഇന്നത്തേക്ക് വേണ്ടിയാണ് എനിക്ക് അത്യാവശ്യം ആയത് കൊണ്ടാണ് ഞാൻ ബുക്ക് ചെയ്തത് വേണമെങ്കിൽ ഞാൻ എൻ്റെ ഇതിൻ്റെ നാലക്ക നമ്പർ വേണമെങ്കിൽ പറഞ്ഞ് തരാം അൻപത്തി നാല് പതിനൊന്ന് എന്നാണ് ഒന്ന് നോക്കിയിട്ട് എനിക്ക് ഒന്ന് കൊണ്ട് വരാൻ പറ്റുവോ ഇന്ന് ഒരു ഫങ്ങ്ഷൻ ഉണ്ടായിരുന്നു ഇന്ന് അതിനുവേണ്ടിയായിരുന്നു അത്യാവശ്യം ആയതുകൊണ്ടാണ് ഓർഡർ ചെയ്തത് ആ ആ ശരി ഓ അഡ്രസ്സ് തുമ്പുങ്കൽ വീട് അമ്പൂരി എന്നാണ് ഇന്ന് തന്നെ ഒന്ന് കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം അത്യാവശ്യം ആയത് കൊണ്ടാണ് ആ ശരി